ഇപ്പോൾ ഞാൻ അങ്ങനെ ആർട്ട് എക്സിബിഷനൊക്കെ പോയിട്ടുണ്ടോ എന്നു ചോദിച്ചാൽ ഉണ്ട് സ്കൂളിൽ പഠിച്ച ടൈമിലാണ് നമ്മളിങ്ങനെ എക്സിബിഷന് പോയത് അപ്പോൾ പണ്ട് ഇപ്പോൾ ആൾക്കാർ സ്വന്തമായിട്ട് സൃഷ്ടിക്കുന്ന ആ സാധനങ്ങൾ അതായത് അവരായിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡിസ് ഇതാക്കുന്നത് ഡിസ്പ്ലേ ചെയ്യുന്നൊരു എക്സിബിഷനാണ് ഞാൻ പോയിരുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കണ്ടു പിന്നെ കൂടുതൽ വന്ന് കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ പഴയ വള്ളങ്ങൾ പിന്നെ അതിന് പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തു കൊണ്ടിരുന്ന എന്താ പറയുക ആ മറ്റേ തുഴ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കോടിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ വലകൾ വല പ്രത്യേ അവർ കൈകൊണ്ടുതന്നെ ഉണ്ടാക്കുന്ന വലയും കാര്യങ്ങളും അതൊക്കെ ഒരുപാടുണ്ട് അങ്ങനത്തെ എക്സിബിഷനൊക്കെയാണ് ഞാൻ പണ്ട് പോയ്ക്കൊണ്ടിരുന്നത് മീനിൻ്റെ ഇത് തന്നെയാണ് കൂടുതലും ആൾക്കാരവിടെ എന്താ പറയുക ഡിസ്പ്ലേ ചെയ്തു കൊണ്ടിരുന്നത് പിന്നെ വെറൈറ്റി സാധനങ്ങളെന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു വീട്ടിലുള്ള വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതുപയോഗിച്ച് കൈകൊണ്ട് തന്നെ അവർ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ അവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സാധങ്ങളൊക്കെയാണ് ഞാൻ കണ്ടത് കണ്ടത് അവിടെ